ഹലോ ആ ഹലോ പറഞ്ഞോളൂ ഓക്കെ എന്തിൻ്റെ ലോണായിരുന്നു നോക്കുന്നത് ബിസിനസ് ലോണാണോ എഡ്യൂക്കേഷൻ ലോണാണോ ബിസിനസ് ലോണാണല്ലേ ഓക്കെ നിങ്ങൾ ഓക്കെ ഞാൻ പറയാം നമ്മളിപ്പോൾ നിങ്ങള് സ്വന്തം സ്ഥലത്താണോ തുടങ്ങുന്നത് തുടങ്ങുന്നത് ടൗൺ ഏരിയയിൽ ഒക്കെ ആയിട്ടാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നത് എന്ത് തരം ബിസിനസ്സാണ് തുടങ്ങുന്നത് ആ ഓക്കെ ഓക്കെ എല്ലാ തരം എല്ലാ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണോ ആണല്ലോ അല്ലെ ആ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ പത്ത് ലക്ഷം രൂപവരെ ലോൺ കൊടുക്കുന്നുണ്ട് അതായത് കൊല്ലം ആയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതില് കൂടുതൽ വേണം എങ്കില് ചോദിക്കാം അതിൽ കൂടുതൽ വേണമെങ്കിൽ കൊളക്ടറൽ വച്ചിട്ട് നമുക്ക് മേടിക്കാം പലിശ റേറ്റ് വരുന്നത് കൊളക്ടറൽ ഇല്ലാത്തതിൽ റേ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും അതൊരു നയിൻറ്റി നൈൻ തൗസൻട് ഒക്കെ ആയിരിക്കും അല്ലാത്തത് വരുമ്പോൾ കൊളക്ടറൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പൈസയും കിട്ടും ആ ഡോക്യൂമെൻസ് വേണ്ടത് നിങ്ങൾ ഇപ്പോൾ അവിടുത്തെ നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന കടയുടെ വിസ്തീർണം പിന്നെ നിങ്ങളുടെ പ്ലാൻ പ്ലാൻ എ എങ്ങനാണ് തുടങ്ങണ്ടത് എന്നുള്ള പ്ലാൻ ഒക്കെ ചേർത്തോരു ഇത് ഒരു ഒരു ഒരു ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇത് ആ നമുക്ക് നമ്മുടെ പേരിലാണ് ഉള്ളതെങ്കില് ആ ആള് വരണം ഏതാണ് പ്രോപ്പർട്ടി നിങ്ങള് കോളക്റ്ററിൽ വെക്കാൻ പോകുന്നത് ആ ആളൊന്ന് വന്ന് വന്ന് സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങള് ഓക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ ആ ഓക്കെ ഓക്കെ ശരി